യാത്ര ചെയ്യുകയാണെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യണം യാത്ര നൽകുന്ന ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നൽകുന്ന അനുഭൂതി നമ്മൾ ആസ്വദിക്കുന്ന രീതി അത് മറ്റൊരു വ്യത്യസ്തമായ രീതിതന്നെയാണ് ഞാനിപ്പോൾ ഈ അടുത്തിടെ യാത്ര ബൈക്കിൽ യാത്ര ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ് ഞാൻ ഈ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തത് നിലമ്പൂരിൽ നിന്നാണ് അതായത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ ഊട്ടിയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് ഏകദേശം നിലമ്പൂരിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് ഊട്ടിയിലേക്കുള്ളത് ചെങ്കുത്തായ മലനിരകളിലൂടെയുള്ള യാത്ര അതുപോലെ തന്നെ ഒരുപാട് ഹെയർപിൻ വളവിലൂടെയുള്ള യാത്ര തേയില തോട്ടങ്ങളും പനം കാടുകളും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര തണുത്ത കാറ്റ് ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന തണുപ്പ് ഇവയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും പൊതുവേ എനിക്ക് നാല് ചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അധികം ഇഷ്ടമല്ല കാരണം ഞാൻ ഒരു ഛർദ്ദിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വഴി എന്ന് പറയുന്നത് ലേയാണ് കാരണം നമ്മളെ കേരളത്തിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ഒരു ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി അതുപോലെ തന്നെ മണാലി വഴി ലേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതി എന്നു പറയുന്നത് അത് വേറെ തന്നെയാണ് കാരണം ഒരുപാട് ഐസ് നിറഞ്ഞ ചെറിയ ചെറിയ അരുവികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇടുങ്ങിയ റോഡിന് ഇടയിലൂടെയെല്ലാം നമുക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ബൈക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളു അതുപോലെ നമ്മൾ നിർത്താൻ അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് അധികം ട്രാഫിക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഇനി ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് ബൈക്കിൽ ആയിരിക്കും അതും ലേയിലേക്ക് അതുപോലെ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ബൈക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഇടം കൂടിയുണ്ട് അത് നമ്മുടെ സ്വന്തം ഉത്തരാഖണ്ഡ് ആണ് അതും ഏകദേശം നമ്മൾ ഹിമാചൽ പ്രദേശ് പോലെ തന്നെ ഉള്ള ഒരു അന്തരീക്ഷമാണ് അതു പോലെയുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഉത്തരാഖണ്ഡെന്ന് പറയുന്നതും